വസ്തു ഒക്കെ കച്ചവടം ചെയ്യുന്ന ഏജന്റല്ലേ ഇത് ആ എനിക്കൊരാളൊരു നമ്പര് തന്നായിരുന്നേ എനിക്കൊരു വീടും സ്ഥലവുമായിട്ട് മേടിക്കാനായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചു നടന്നപ്പോഴാണ് എനിക്കി നമ്പര് ആ ഹാ അങ്ങനെയാണ് അന്വേഷിച്ചു നടന്നപ്പോഴാണ് ഈ നമ്പര് തന്നത് അപ്പോള് നല്ല രീതിയില് നല്ല ഡീലിംഗ്സാണ് അതോടൊപ്പം തന്നെ നമുക്കനുയോജ്യമായ സ്ഥലങ്ങളൊക്കെ പറഞ്ഞാല് മതി അതു സംഘടിപ്പിച്ചു തരുമെന്ന് എന്നോട് പറഞ്ഞു അതനുസരിച്ച് ഞാന് വിളിച്ചു

ഞാനുദ്ദേശിക്കുന്നതൊരു ഒരു വീടും അതോടൊപ്പം തന്നെ ഒരൽപ്പം സ്ഥലം ഒരു ചുറ്റും ഒരു പത്തിരുപത് സെന്റ് സ്ഥലം ഒരിരുപത് സെന്റ് സ്ഥലവും വീടും മതി ഒത്തിരി കൃഷിഭൂമി ഒന്നും വേണ്ട അപ്പോഴൊരു ഇരുപത് സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും മതി ആ ഒരിരുപത് സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും കൂടെ ആ ഒരായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് അതോടൊപ്പം തന്നെ ഒരിരുപത് സെന്റ് സ്ഥലം ചുറ്റും കൂടി അത് അത്യാവശ്യം നമുക്കൊരു മുറ്റവും കിട്ടുന്ന രീതിയില് അത്യാവശ്യത്തിനു പുറത്തേക്കിറങ്ങിവരാനുള്ള സൗകര്യമുള്ള ആ അങ്ങനെയുള്ളൊരു സ്ഥലവും വീടും കൂടെ എനിക്ക് ടൗണി ലേക്ക് എളുപ്പത്തില് ചെല്ലാവുന്ന എന്നാല് ടൗണിലേക്കു ചേർന്നു വേണ്ട എന്നാല് ഒരു അധിക സമയം എടുക്കാതെ തന്നെ ടൗണില് ചെല്ലാം ആ ഒരു അൽപ്പം മാറി ടൗണില്നിന്നൽപ്പം മാറി എന്നു പറഞ്ഞാല് ടൗണിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത എന്നാല് പെട്ടെന്ന് ടൗണിലേക്കു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ള സ്ഥലവും ഒരു ആ അങ്ങനെയുള്ള സ്ഥലവും ഒരു വീടും എന്നാല് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വീടായിരിക്കണേ വാർക്ക വീടാണ് ഉദ്ദേശിക്കുന്നത് ആ അ അങ്ങനെയുള്ള സ്ഥലവും വീടും ഞാനൊരു എൻ്റെ ബഡ്ജറ്റെന്ന് ഒരമ്പതിനും അറുപതിനും ഇടയ്ക്ക് അമ്പത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനും ഇടയിൽ പറ്റുന്ന ഒരു ആ അപ്പോഴങ്ങനെ കോതമംഗലം കോതമംഗലം ഏരിയയിലൊക്കെ വീടു കിടപ്പുണ്ടോ കോതമംഗലത്തിനു ചുറ്റുവട്ടത്തൊക്കെ ആ അപ്പോള് കോതമംഗലത്തുനിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എൻ്റെ ടൗണില്നിന്നൊരു പതിനഞ്ച് അല്ലെങ്കില് പത്ത് മിനിറ്റിനു മാറി ഉള്ള സ്ഥലം കുഴപ്പമില്ല

ആ അ ആ ഉവ്വ് അപ്പോഴതിനുള്ളില് നമ്മുടെ വീട്ടിലേക്ക് ആ അപ്പോഴാ നമുക്കതടുത്ത ഒരു ദിവസം തന്നെ കണ്ടേക്കാം ഇത് ഇതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്കു പോകാനായിട്ട് കാണാനായിട്ട് അപ്പോള് അതു വീടിന്റെ മുന്നില്ത്തന്നെ ടാറിട്ട റോഡുണ്ടോ ടാറിങ് റോഡായിരിക്കുമല്ലേ ടാറിട്ട റോഡൊക്കെയാണോ ആ ആ അതു കുഴപ്പമില്ല രണ്ട് കിലോ മീറ്റര് വലിയ ദൂരമല്ലല്ലോ ആ ഉവ്വ് ആ ആ രണ്ട് മിനിറ്റില് ആ

ആ ഉവ്വ് അവരുദ്ദേശിച്ച വില എത്രയാണു പറയുന്നത് ആ ഹാ അൽപ്പം കുറയുമായിരിക്കും അല്ലേ ആ ഉവ്വവ്വാ നമുക്ക് വേറൊരു കാര്യം അറിയാനുള്ളതേ നമ്മളീ വീടിൻ്റെ മുറ്റത്ത് കിണറോ അങ്ങനെയല്ലെങ്കില് ജല സൗകര്യങ്ങളൊക്കെ അല്ല ആവശ്യത്തിനു വെള്ളമൊക്കെ ആ അതെ ഉണ്ടല്ലോ അല്ലെ വറ്റാത്ത വെള്ളമാണോ ആ അപ്പോള് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള അല്ലേ സൗകര്യങ്ങളുള്ള വീട് വീട്ടിൻ്റെ മുറ്റത്തേക്കു വണ്ടിയും കയറിച്ചെല്ലുന്ന ആ ഉവ്വ് ആ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ നാളെ കഴിഞ്ഞ് അസൗകര്യമില്ലെങ്കില് നാളെ കഴിഞ്ഞങ്ങു പോയാലോ അപ്പോള് നാളെക്കഴിഞ്ഞ് അങ്ങാനെയാണെങ്കില് ഞാനൊരു എട്ടു മണി കഴിയുമ്പോള് ഇറങ്ങാം നമുക്ക് ഞാൻ വിളിക്കാം ആ എട്ട് മണി ആവുമ്പോള് ഞാൻ വിളിക്കാം ആ നമുക്കെട്ടു മണിക്ക് ഇവിടെനിന്നു പോയി കണ്ടിട്ട് കണ്ട് നമുക്ക് അവരുമായിട്ട് കക്ഷിയുമായിട്ടൊക്കെ സംസാരിച്ച് ആ

അപ്പോള് അങ്ങനെയാണ് അങ്ങനെയാണെങ്കില് നമുക്ക് ആ ആ നാളെ കഴിഞ്ഞ് രാവിലെ എട്ടു മണിയാവുമ്പോഴത്തേക്കും ഇറങ്ങാം ഞാൻ ഇറങ്ങാൻ നേരത്തു വിളിക്കാം നമുക്കതൊന്ന് ഒന്നിച്ചു പോയിട്ടേ കണ്ട് അവരോടു സംസാരിച്ച്

ആ അങ്ങനെ ആണെങ്കിൽ നമുക്കന്നൊരു ആ ഉവ്വാ അങ്ങനെ ആണെങ്കിൽ ശരി എന്നാല് അങ്ങനെ ഓക്കെ നാളെ നാളെ കഴിഞ്ഞ് ഞാന് എട്ടു മണിയാകുമ്പോള് വിളിക്കാം നമുക്കൊന്നിച്ചു പോയി കണ്ട് നമുക്ക് അതു വേണ്ട കാര്യങ്ങള് ഡീലെയാം ആ ആ ആ ആയിക്കോട്ടെ എന്നാ താങ്ക്യൂ നമുക്ക് നാളത്തേക്ക് കാണാം ഓക്കെ ശരി